കുട്ടികള് ഇന്നത്തെ കാലത്ത് കളിക്കുന്ന പുതിയ കളികള് എന്ന് പറയുമ്പോള് പുതിയ കളികള് എന്ന് പറയാമ്പറ്റൂല്ലെങ്കില് അത് ഫുട്ബോളൊക്കെ തന്നെയാണ് ഇപ്പോള് കൂടുതലും കളിക്കുന്നത് കുട്ടികളൊക്കെ അതേപോലന്നെ ബാഡ്മിന്റണ് നല്ലോണം കളിക്കുന്നുണ്ട് രാവിലെ കുട്ടികള് അതേപോലെ പിന്നെ പിന്നെ കൂടുതലും ജിമ്മിലൊക്കെ പോകുന്നവര് ഒരു സംഭവമാണ് അപ്പോള് കുട്ടികള്ക്ക് കളികള് എന്നു പറയുന്നത് ഫുട്ബോള് തന്നെയാണ് ഇപ്പോള് കളിക്കുന്നത് കുട്ടികളായാലും വലിയവരായാലും കുട്ടികള് ഒക്കെ കളിക്കുന്നത് ഫുട്ബോള് തന്നെയാണ് ഇപ്പോള് പുതിയ കളികള് എന്നുപറയുന്നത് ഫുട്ബോള് തന്നെയാണ് അതിൻ്റെ അത് പിന്നെ വേറെയുള്ള കളികള് കുറവാണ് ബാഡ്മിൻ്റല് കളിക്കുന്നുണ്ട് രാവിലെ എക്സർസൈസിനു വേണ്ടി കളിക്കും ഇത് പിന്നെ അത്തരം പക്ഷെ ഫുട്ബോളന്നെയാണതിൻ്റെ പ്രധാനം നന്നായിട്ടും കളിക്കുന്നത് ഫുട്ബോള് തന്നെയാണ് അത് ഇവിടപ്പോള് പ്രത്യേകിച്ച് കളികളൊന്നും അങ്ങനെ ഇല്ല ഫുട്ബോള് തന്നെയാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ളത് പിന്നെ രാവിലെ ഓടുക എന്നുള്ള അങ്ങനത്തൊരു സംഗതികളൊക്കെ പ്രധാനമാണ് ചെയ്യുന്നവരുണ്ട്